പണ്ടു കാലത്തെ ഫോണെന്നൊക്കെ പറയുമ്പോൾ സാധാരണ എന്താ പറയാ ഈ സ്വിച്ചൊക്കെ വരുന്ന ടൈപ്പ് ടൈപ്പ് എന്താ പറയാ ഈ സ്വിച്ച് വരുന്ന ടൈപ്പ് ഫോണായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണാണ് കാരണം ഇന്റർനെറ്റ് പോലുള്ളവയൊക്കെ ഉപയോഗിക്കാൻ എളുപ്പത്തിനനുസരിച്ച് എല്ലാവരും സ്മാർട്ട് ഫോണുകളിലേക്ക് മാറി അപ്പോൾ അതിൽ നമുക്ക് നെറ്റിൽക്കൂടെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ളവയും ഇപ്പോൾ കൂടുതൽ ഗെയിമ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളിക്കാനൊക്കെയായിട്ട് കൂടുതലാൾക്കാരും ഇന്ന് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടച്ച് സ്വിച്ച്കളിലൊക്കെ ഞെക്കിയായിരുന്നു കോള് വിളിക്കുന്നത് എന്നാൽ ഇന്നിപ്പോൾ എല്ലാം വിരലുകൊണ്ട് ജസ്റ്റ് എന്താ പറയാ സകീനിൽ ടച്ച് ചെയ്തത്തന്നെ കോളും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇന്റർനെറ്റിന്റെ ഉപയോഗമൊക്കെ സ്മാർട്ട് ഫോണ് വന്നു കഴിഞ്ഞപ്പോഴ്ത്തേക്കും നല്ല രീതിക്കന്നെ കൂടി കാരണം ടൈപ്പ് ഫോണുകളിലൊന്നും ഇന്റർനെറ്റ് അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പണ്ട് അങ്ങനത്തെ ഫോണുകളിലൊന്നും ഇന്റർനെറ്റിന് വലിയ പ്രചാരണം വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ആൻഡ്രോയ്ഡ് ഫോണുകൾ വന്നതോടു കൂടി ഇന്റർനെറ്റൊക്കെ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോന്റെ സിമ്മാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഫൈ ജിലേക്കൊക്കെ അപ്ടേറ്റായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫോർ ജി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം സ്പീഡ് എല്ലാ നെറ്റ്വർക്കിനും കിട്ടിത്തുടങ്ങിയിരുന്നു അപ്പോൾ ഫൈ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എല്ലാം പെട്ടന്ന് പെട്ടന്ന് സ്പോട്ടിത്തന്നെ നമുക്ക് കാണാൻ ഒക്കെ കഴിയും അപ്പോൾ പിന്നെ പ്രതിമാസം ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്നന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ പ്ലാനാണ് സാധാരണ ചെയ്യുന്നത് ഡാറ്റ അടക്കമുള്ള പ്ലാനാണ് ഞാൻ സാധാരണയിപ്പോൾ സിമ്മിൽ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനത്തെ പ്ലാനുകളാണ് സാധാരണ ഫോണുകളിൽ ചെയ്യുന്നത്